ഹോട്ടലുകളിൽ ചെന്നു കഴിഞ്ഞാൽ ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനുള്ള ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ കഴിക്കാറ് കാരണം അവിടുത്തെ ഫൂഡുകൾക്ക് നല്ല ക്വാളിറ്റി അതുപോലുള്ള ഫൂഡുകൾ കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടാകുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും പിന്നെ എല്ലാവരും കഴിക്കാമെന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള മസാല ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കാറ് അതുപോല തന്നെ പിന്നെ സൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചായ ചെറിയ കടികളൊക്കെയാണ് ഹോട്ടലിൽ പോയി സാധാരണ കഴിക്കാറ് പിന്നെ തട്ട് കടേലോട്ട് ചെല്ലുമ്പഴത്തേക്കിലും ഓംപ്ലെയ്റ്റ് തേയില കട്ടൻ കാപ്പി അതുപോലുള്ള ചായകൾ ചെറുകടികളങ്ങനൊന്നും തട്ട് കടകളിൽ കണാത്ത കൊണ്ട് പൊറോട്ടയെ കാണും പൊറോട്ട ഓംപ്ലെയ്റ്റ് ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്നു കഴിക്കും കാരണം അതിന് ടെയിസ്റ്റ് കൂടുതലായിരിക്കും തട്ട് കടയിലെ ഫൂഡിനപ്പം വേറെ ടേസ്റ്റാണ് അതിന് ഹോട്ടൽ ഫുഡായിട്ട് നമുക്ക് കമ്പേർ ചെയ്യാൻ പോലും സാധിക്കത്തില്ല അതുപോലെതന്നെയാണ് രണ്ട് ഫുഡിനും ഓരോ ഇതായിട്ടുള്ള ടേസ്റ്റുണ്ട് അതിൻറേതായിട്ടുള്ള ടേസ്റ്റുണ്ട് ഒരിക്കൽ തട്ടുകടേലെ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ അതിനൊരു ക്വാളിറ്റി കുറവായിരിക്കും പിന്നെ അവരുണ്ടാക്കുന്ന രീതിയിൽ മസാല അങ്ങനൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട് ഹോട്ടലുകളിൽ നിന്നും കഴിക്കുന്നു അതുപോലുള്ള ഭക്ഷണങ്ങൾ തട്ടുകടയിലെ ഫൂഡുകൾ അവിടെ പോയി കഴിച്ചാലൊന്നും രുചി കിട്ടത്തില്ല കാരണം തട്ട് ദോശയും പൊറോട്ടയും നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കിത്തരുമ്പോഴ്തേനും നമുക്ക് അത് കഴിക്കാനുള്ള ആഗ്രഹം പിന്നേം പിന്നേം കൂടും പിന്നെ ഡബിൾ ഓംപ്ലേറ്റ് ചൂടായി അപ്പോൾതന്നെ കിട്ടുമ്പോഴ്ത്തേലും സിങ്കിളു അങ്ങനുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നേരം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം വീണ്ടും വർധിക്കത്തേയുള്ളു